കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തരണം കട്ട് ചെയ്ത് തരണം കടയിലേക്കല്ലേ അത് അയില അയില അയിലക്കൊക്കെ വിലക്കുറവാണ് മറ്റേ മീനൊക്കെ വിലക്കൂടുതലാണ് വേറെ മീൻ വറ്റയുണ്ട് വറ്റ വറ്റ അയില അയില ഇരുന്നൂറ് രൂപ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ എല്ലാം എല്ലാം ഫ്രഷ് ആക്കി തരേണ്ടെ അത് വെട്ടി തരാം അല്ലേ ആ അപ്പം ഇത് ആ അത് ഓകെ ഓക്കെ ഒക്കെ ഓക്കെ വറ്റ വറ്റ നമുക്ക് വലിയ പീസായിട്ടും നുറുക്കണോ അതോ ചെറിയ പീസായിട്ട് നുറുക്കണോ പീസ് മതിയല്ലേ ആ അപ്പം അത് എപ്പോഴത്തേക്കാ വേണ്ടതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിപ്പം ഇത് റെഡി ആയി കഴിയുമ്പോഴത്തേക്ക് വിളിച്ചാൽ മതിയോ ഇത് ഫീസൊക്കെ റെഡി ആയിക്കഴിഞ്ഞ് പത്ത് മണിക്കത്തേക്ക് റെഡി ആക്കി തന്നേക്കാം പത്ത് മണിക്കത്തേക്ക് ഇപ്പം ഇത് കട്ടിങ്ങ് കട്ടിങ്ങിന് പൈസ ഉണ്ട് കേട്ടോ ഇത്രയും കട്ടിങ്ങിന് പൈസ അത് കൊടുക്കണം നിങ്ങൾക്ക് പിന്നെ സ്ഥിരമായിട്ടും സ്ഥിരമായിട്ടും സ്ഥിരമായിട്ടും ഞങ്ങളെ മാർക്കറ്റുമായിട്ട് കോൺടാക്ട് ചെയ്യുമെങ്കിൽ അതനുസരിച്ച് വില കുറച്ച് തരാം സ്ഥിരമായിട്ട് ഏ കടയിൽ കടയിൽ കൊണ്ടുവരിക കടയിൽ കൊണ്ടുവരിക സ്ഥിരമായിട്ട് നിങ്ങളുടെ ഹോട്ടലേക്ക് ഇവിടുന്ന് സാധനം എടുക്കുവാണെങ്കിൽ എല്ലാ കുറച്ചുകൂടെ വില കുറച്ചുതരാം പുറത്തുള്ളതിനേക്കാളും വില കുറച്ച് തരാം

ആ ഓക്കെ ഓക്കെ ഓക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഞങ്ങളിൽനിന്ന് സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും നന്നായിട്ട് തന്നെ ഏ ആ ഓക്കെ ശരിയെ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ സർവീസ് നന്നായിരിക്കും അത് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഓക്കെ ഏ ഓക്കെ ഓക്കെ വരാം വരാം ഓക്കെ